മല കയറുമ്പോൾ അതായത് ഈ എനിക്ക് സത്യം പറഞ്ഞാ ഹൈറ്റ് ഭയങ്കര പേടിയായിരുന്നു അത് ഓവർകം ചെയ്യാൻ വേണ്ടീട്ട് തന്നെയാണ് ഞാന് മലകയറ്റം പഠിക്കാൻ അല്ലെങ്കിൽ കയറാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം കേറുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്താ പറയുക ആദ്യം ചെറിയ ചെറിയ ഹൈറ്റ് ചെറിയ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറടി മുന്നൂറ്റമ്പത്തടി അങ്ങനത്തെ ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ വലിയ കുന്നുകൾ കയറാൻ തുടങ്ങി നല്ല എന്താ പറയുക ആദ്യത്തെ ഒരു കുറേ സമയം പതുക്കെയാണ് കേറീണ്ടായിരുന്നത് അത് പോലെ എന്താ പറയുക കൂടെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ നിറയെ ഇണ്ടായിട്ടുണ്ട് വീണ് കൈ കൈയിൻ്റെ വിരലൊടിഞ്ഞിട്ടുണ്ട് കൈയില് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ വീട്ടുകാരുടെ ഇതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാ എൻ്റെ ഉള്ളില് പേടി മാറണം എങ്കിൽ എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു വാശിയും ഉണ്ട് പിന്നെയും പിന്നെയും കുറേ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പേടി ചെറിയ പേടി ഇണ്ടെങ്കിലും ഇപ്പോൾ എന്തായാലും ഒറ്റക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻപ് എന്ന് പറയുമ്പോ ആൾക്കാര് ഇല്ല അതായത് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഇത് മാത്രേ ഞാൻ പോകാറുള്ളൂ ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല ഇപ്പം ഏത് രാത്രിയായാലും പകലായാലും പോവാം എന്നുള്ള ഒരു ഒറ്റക്ക് പോയി ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിന് അഹങ്കാരമില്ല നമ്മൾ എന്താ പറയുക ചെയ്യും നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് നമ്മള് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസാണ് നൽകിയിരിക്കുന്നത്